സമൂഹത്തിൽ എല്ലാ കുട്ടികൾക്കും തുല്യമായ വിദ്യാഭ്യാസം ലഭിക്കാറില്ല കാരണം നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഫീസ് കൊടുക്കേണ്ടതാണ് ഇത് എല്ലാ മാതാക്കൾക്കും കഴിയുകില്ല കാരണം എല്ലാവർക്കും തുല്യ ശമ്പളമോ കാര്യങ്ങളോ അല്ല ഉള്ളത് തുല്യ ജോലിയോ അല്ല അവരുടെ പഠിത്തത്തിൻ്റെയും കമ്പനീടേയുമായ പല ശമ്പള വ്യത്യാസങ്ങളുമുണ്ട് ഇതുകൊണ്ട് ഒക്കെ കുട്ടികളെ നമ്മളാഗ്രഹിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാൻ ചിലപ്പോൾ എങ്കിലും മാതാപിതാക്കൾക്ക് സാധിക്കണം എന്ന് എന്നില്ല എങ്കിലും മാതാപിതാക്കൾ അവരുടെ പരമാവധി കുട്ടികളെ നല്ല വിദ്യാഭ്യാസം നൽകാൻ ആഗ്രഹിക്കുന്നു നൽകുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഉയർന്ന ഫീസ് കൊണ്ടും ഉയർന്ന ഫീസ് കൊണ്ടും ഒക്കെയാണ് പല കുട്ടികളുടെയും വിദ്യാഭ്യാസം മുടങ്ങിപ്പോവുന്നത് എൻ്റെ അഭിപ്രായത്തിൽ സർക്കാറിതിനെ വലിയൊരു കാര്യമായി തന്നെ നോക്കേണ്ടതാണ് കാരണം നമ്മളുടെ കുട്ടികൾ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ലതാണ് എന്നാൽ എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കണം കാരണം നാളയുടെ ഭാവി അവരാണ് അവർടെരു അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ നാളെ ഒരു നല്ല ജോലി കിട്ടാനും നല്ലൊരു പദവിയിലെത്താനോ അവർക്ക് സാധിക്കണമെന്നില്ല

നമ്മളെ സർക്കാർ ഇതിനെ വലിയൊരു വിഷയമായി തന്നെ പരിഗണിക്കണം സർക്കാരിന്

ഫീസ് ലളിതമായ ഫീസിൽ പഠിപ്പിക്കാൻ കഴിയും നല്ലൊരു ഫെസിലിറ്റീസ് കൊടുത്ത് സർക്കാര് അവരുടെ ഇത് കയ്യിൽ നിന്ന് തന്നെ പൈസയിട്ട് നല്ലൊരു ഫെസിലിറ്റിയുള്ള സ്കൂള്കൾ നിർമ്മിച്ച് അവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള അധ്യാപകരെ വെച്ച് പഠിപ്പിക്കാൻ സർക്കാരിന് കഴിയും സർക്കാർ സർക്കാരിൻ്റെ കയ്യിലെ പൈസ വെച്ച് തന്നെ ആ ടീച്ചേഴ്സിനുള്ള അധ്യാപകർക്കുള്ള ആ ഫീസ് കൊടുക്കുകയും അതോടൊപ്പം കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകാനും സർക്കാരിന് കഴിയും ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന കുട്ടികൾ കുട്ടികൾ പലപ്പോഴും വിദ്യാഭ്യാസം നേടാറില്ല

അതിന് പ്രധാനമായ ഒരു കാരണം അവർക്ക് നല്ലൊരു സ്കൂളോ അല്ലെങ്കിൽ നല്ല ഒരു വിദ്യാഭ്യാസം ലഭിക്കാനുള്ള പഠിപ്പിച്ച് തരാനുള്ള അധ്യാപകരില്ലാത്തത് കൊണ്ടൊക്കെയാണ് രാഷ്ട്രീയക്കാർ ഇതിനെ വളരെ വലിയ വിഷയമായി തന്നെ കാണണം കാരണം വോട്ടിന് വേണ്ടി മാത്രമല്ല വോട്ട് ചെയ്യാൻ അവർക്ക് വോട്ട് നൽകാൻ വേണ്ടി മാത്രമല്ല ആൾക്കാറുള്ളത് അവരുടെ ഒരു കാര്യം കൂടെ സർക്കാർ നോക്കേണ്ടതാണ് ജയിച്ച് കഴിഞ്ഞാൽ സർക്കാർ അവരുടെ കാര്യങ്ങളായിപ്പോവും ഈ വോട്ട് ചെയ്ത ആൾക്കൊരു പരിഗണന പോലും നൽകാറില്ല നാളെ വോട്ട് ചെയ്യണമെങ്കിൽ അതിന് വിദ്യാഭ്യാസം വേണ്ടതാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും ഒരു കുറവ് വരുത്താൻ കഴിയുകയില്ല സർക്കാരതിനെ വലിയ ഒരു വിഷയമായി തന്നെ കാണണം

പിന്നെ അതുപോലെത്തന്നെ പല പല മാനേജ്മെൻറ്റ്കളിലും വളരെ അധികം ഫീസ് ആണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്കളിൽ വളരെ അധികം ഫീസാണ് മാനേജ്മെൻ്റ് പേരൻസ്നോട് ചോദിക്കുക അതവർ കുറയ്ക്കുക അല്ലെങ്കിൽ സർക്കാർ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുക